ഞാൻ കുട്ടനാട്ടിലാണ് ജീവിക്കുന്നെ എനിക്ക് എൻ്റെ അവിടെ എപ്പോഴും വെള്ളം കയറുകയും വെള്ളപ്പൊക്കം ഉണ്ട് അതുകൊണ്ട് എനിക്കവിടെ എൻ്റെ രേഖ എൻ്റെ സ്വത്ത് രേഖകളൊന്നും അവിടെ സൂക്ഷിക്കാൻ ഇതില്ല അതിൻ്റെ ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കാൻ ഡിജിറ്റൽ രേഖയിലെ എൻ്റെ സ്വത്ത് രേഖകൾ ഡിജിറ്റലേക്ക് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള എങ്ങനെയാണെന്ന് ഉള്ളത് ഞാൻ എനിക്കൊന്ന് പറഞ്ഞു തരികയും വേണം അതുപോലെത്തന്നെ എൻ്റെ പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന ജോലിയങ്ങ് കോട്ടയത്താണ് എനിക്കവിടെ സാഹചര്യങ്ങളൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് കോട്ടയത്തേക്ക് അല്ല ആലപ്പുഴയിൽനിന്ന് എനിക്ക് കോട്ടയത്തേക്ക് ഒന്നാക്കണം അതിനുവേണ്ടിയാണ് ഞാനിപ്പം ഇത് ഡിജിറ്റൽ രേഖയിലേക്ക് ഞാൻ സേവനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്